എന്നെ ഇപ്പോൾ കൂടുതലായിട്ട് സന്തോഷിപ്പിക്കുന്നത് എനിക്ക് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എന്നെയിപ്പോൾ എന്താ പറയുക നമുക്ക് കൂടുതലായിട്ടും നല്ല കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷവും കാര്യങ്ങളൊക്കെയുണ്ടാകും കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് നമ്മളെക്കുറിച്ച് മോശം പറയാനും ഇഷ്ട്ടം പോലെ ആൾക്കാരുണ്ടാകും പക്ഷെ അവരിൽ നിന്ന് ആരെങ്കിലും ഒരാള് നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എനിക്ക് കൂടുതലായിട്ടും ഇങ്ങനെ യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുടുംബത്തോടെയാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും എനിക്ക് യാത്ര പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് കൂടുതലായിട്ടും സന്തോഷം വരുന്നൂന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ എൻ്റെ ഇപ്പം കുടുംബത്തോടെയൊക്ക് അതായത് എൻ്റെ മോനും ഭാര്യയും അച്ഛൻ അമ്മ അവരെയൊക്കെ കൂട്ടീട്ട് കൂടുതലായിട്ടും യാത്ര പോകാനൊക്കെ ഭയങ്കര താല്പര്യമാണ് അപ്പം അത് നമ്മള് കൂടുതലായിട്ട് എൻജോയ് തന്നെ എൻജോയ് ചെയ്യും അപ്പം കാരണമെന്താന്ന് വച്ച് കഴിഞ്ഞാല് നമ്മുടെ എൻ്റെ കൊച്ചിൻ്റെ എന്താ പറയുക സന്തോഷവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള സന്തോഷവും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അതൊക്കെയാണ് മെയ്നായിട്ട് എന്നെ സന്തോഷിപ്പിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോ ഞങ്ങള് കൂടുതലായിട്ടും യാത്രയാണ് ചെയ്യാറ് അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ട്ടമുള്ളതും